ഞാന് സ്കൂളില് പഠിച്ചിരുന്ന കാലഘട്ടത്തില് ഞങ്ങള് കു പിന്നെ സ്കൂളില് സോഷ്യലൊക്കെ വര്മ്പഴത്തേക്ക് ഞങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ വെക്കും അപ്പം ആദ്യവായിട്ട് ഞങ്ങള് പിള്ളേരുവൊക്കേയിട്ട് ഒരു നാടകം കളിക്കാനായിട്ട് പ്രാക്ടീസ്യ്കയും സ്റ്റേജിലോട്ട് കയറിക്കഴിഞ്ഞപ്പഴത്തേക്ക് ഞാന് ശരിക്ക് പേടിച്ച് പോയി എന്റെ മുട്ട്കാല് രണ്ടും പടപടാന്നും പറഞ്ഞ് വിറയ്ക്കുകയും എനിക്ക് തല കറങ്ങുന്നത് എന്ന് തോന്നി അപ്പം ഞാന് പെട്ടെന്ന് സ്റ്റേജില് നിന്ന് ബോധംകെട്ട് വീണെന്ന് തന്നെ വേണം പറയാന് അവിടുന്നെല്ലാരും കൂടെ എന്നെ എടുത്ത് റൂമിൽ ടീച്ചേഴ്സ് റൂമിൽ കൊണ്ടു വന്ന് വെള്ളവെല്ലാം തളിചിട്ട് സമാധാനൊക്ക പറഞ്ഞ് എനിക്ക് ധൈര്യം പകര്ന്ന് തന്ന എന്റെ അദ്ധ്യാപകരും എന്റെ കൂട്ടുകാരുവായിരുന്നു അപ്പം അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേറെ പ്രോഗ്രാമെല്ലാം വേറെ കുട്ടികളുടെ നടന്ന് കഴിഞ്ഞിട്ടാണ് ഞാന് എനിക്കൊരു കോണ്ഫിഡെന്സ് കിട്ടിയതിന് ശേഷമാണ് അവരുടെ സപ്പോര്ട്ടോട് കൂടി വീണ്ടും എനിക്ക് സ്റ്റേജിലേക്ക് കയറുവാനും എനിക്ക് സാധിച്ചത് അതുപോലെ തന്നെ നാ പാട്ട് പാടുന്ന സമയത്തും ഇത്പോലെ തന്നെയായിരുന്നു ആദ്യമായിട്ട് കയറിയപ്പഴത്തേക്കും എനിക്ക് ഉള്ളിലൊരു ആള്ക്കാരെയെല്ലാം കണ്ട് കഴിയുമ്പൊരു ഭയമാരുന്നു ആ ഭയം ഭയം കൊണ്ട് എനിക്ക് പാടി വന്നതിന്റെ എന്റെ വരികളെല്ലാം മാറിപ്പോയി ഞാന് സ്റ്റേജിലാണോ നിൽക്കുന്നതിന് പോലും എനിക്കറിയത്തില്ല കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്ന കണക്കുള്ള ഒരനുഭവം എനിക്കുണ്ടായി അന്നിട്ട് ഞാനെടയ്ക്കിട്ടങ്ങ് നിറുത്തി കളഞ്ഞു പിന്നെ ഇത് തന്നെ അവിടെ വന്ന് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുപോയി വെള്ളവെല്ലാം തന്ന് അദ്ധ്യാപകരും കുട്ടികളും എല്ലാവരും എന്റെ സ്നേഹിതരെല്ലാവരും എന്നെ നല്ലത് പോലെ സപ്പോര്ട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാന് പാടുവാനായിട്ട് സ്റ്റേജിലേക്ക് കയറി എനിക്ക് പാടാന് പറ്റി അതിലെനിക്ക് രണ്ടാം സ്ഥാനവാണെനിക്കന്ന് കിട്ടിയത് ഞാനന്ന് മൂന്നാം ക്ലാസ്സില് പഠിക്കുന്ന സമയവായിരുന്നു എനിക്കതൊക്കെ നല്ല ഓര്മ്മയിലാണ് ഇപ്പഴും എനിക്ക് കിട്ടിയതന്നൊരു സോപ്പ് പെട്ടിയാരുന്നു പ്ലാസ്റ്റിക്കിന്റ്റൊരു ചെറിയൊരു സോപ്പ് പെട്ടി പിന്നെ ആ പാട്ടിന്റെ സമയത്താണെങ്കിൽ തന്നെയാണേലും നമുക്ക് ഒത്തിരി പേരുടെ സപ്പോര്ട്ട് നമുക്ക് വന്നു നമ്മള് ഇതിന് മുന്നോട്ട് അപ്പം അന്നും എനിക്ക് മനസിലായി സ്റ്റേജില് കയറുമ്പത്തേക്ക് നമുക്ക് എല്ലാവരും സപ്പോര്ട്ട് ഉണ്ട് അത്കാരണം നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വെച്ച് പിന്നെ ഞങ്ങള് ഓരോ പ്രോഗ്രാമിലും ഞങ്ങള് പങ്കെടുക്കുവാന് തുടങ്ങി അത് വളര്ന്ന് വലുതായി ഞങ്ങള് പത്താം ക്ലാസും പ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പഴത്തേക്ക് പത്താം ക്ലാസിലെ പഠനവെല്ലാം പൂര്ത്തിയായി പിന്നെ ഞങ്ങൾക്ക് സ്റ്റേജില് കേറുമ്പഴത്തേക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല പിന്നെ ഞാന് കരുവാറ്റയില് എന്നെ കെട്ടിച്ച് വിട്ടയ്ന് ശേഷം ഞാന് ഇരുപത്തഞ്ച് വര്ഷക്കാലവായി ഇവിടെ വന്നിട്ട് പള്ളിയുടെ എല്ലാ പ്രവര്ത്തനത്തിനും നിൽക്കുമ്പഴത്തേക്കും പാടാനാണേലും ഗ്രൂപ്പ് സോങ്ങിനാണേലും സിംഗിള് സോങ്ങിനാണേലും എല്ലാത്തിലും ഞാന് കയറും പക്ഷെ ഗ്രൂപ്പ് സോങ്ങ് പാടുമ്പഴത്തേക്ക് എന്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളു ഞാനത്രയ്ക്ക് സ്റ്റേജില് മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് എന്റെ ജീവിതത്തില് മറി കടക്കാന് ഞാന് സ്റ്റേജില് കയറുമ്പം ഞാനാ ഞാനല്ലാതായാണ് മാറുന്നത് എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പ്രകടനം ചെയ്യാന് പ്രാര്ത്തും പാട്ട് പാടാനുള്ളൊരു കൃപ തമ്പുരാന്റെ ഭാഗത്തെനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കുന്നുണ്ട് ഒര് കുഴപ്പവുമില്ല എനിക്ക് പാട്ട് പാടുന്നതിലൊരു ബുദ്ധിമുട്ടില്ല ആ സമയം ആകുമ്പം എനിക്കെവിടുന്നെങ്കിലും എനിക്ക് പാടാന് പറ്റ് കഴിവ് തരുന്നത് എന്ന് എനിക്കറിയത്തില്ല നല്ല രീതിയിലെനിക്ക് പാട്ട് പാടുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് കാരണമെനിക്ക് ഇപ്പം ഭയമൊന്നും തന്നെയില്ല സ്റ്റേജിൽ കയറി പാടാന് ഏത് സമയത്താര് പറഞ്ഞാലും നമ്മളെക്കൊണ്ട് കഴിവതും പറ്റുന്ന രീതിയില് നമുക്ക് അറിയാവുന്ന പാട്ട് നമ്മുടെ രീതിയിൽ നമ്മള് പാടി ഫർസ്റ്റ് മേടിക്കാറുണ്ട് എടത്വായിലും ഞങ്ങള് പോകാനാണ് മത്സരത്തിനൊക്കെ പോകുമ്പഴത്തേക്ക് ഞങ്ങൾക്ക് ഗ്രൂപ്പ് സോങ്ങിനാണേലും സിംഗിള് സോങ്ങിനാണേലും സമ്മാനം കിട്ടിയിട്ടുണ്ടെനിക്ക് അതിലെക്കെ ഞാനൊത്തിരി അഭിമാനിക്കുന്നുണ്ട് മാതൃവീഥിയുടെ രീതീലാണ് ഞങ്ങള് ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് അതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ട്രോഫിയെല്ലാം കിട്ടിയത് ഞങ്ങളുടെ വീട്ടിലിപ്പഴും ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ വളരെയൊരു സന്തോഷവാണ് അപ്പം നമുക്ക് ആ സ്കൂള് കാലഘട്ടത്തില് നമുക്ക് വ വന്ന അനുഭവത്തെ മറികടക്കാനായിട്ട് നമുക്ക് കൂടുതലും ബലം നല്കിയത് നമ്മുടെ അദ്ധ്യാപകര് സഹപാഠികളുവാണ് അതില് നമുക്ക് സന്തോഷത്തോട് കൂടി തന്നെ കാര്യങ്ങള് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഉള്ള മറികടക്കാനുള്ളൊരു ഈ വ അനുഭവം നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്കൂള് കാലഘട്ടത്തിലാണ് ഭയമോ അഭയമോ ഉണ്ടായിരുന്നു പരിഭ്രമം ഉണ്ടായിരുന്നതൊക്കെ തന്നെ നമുക്ക് മറി കടക്കേണ്ടി വന്ന ഒരു അനുഭവം ഒത്തിരിത്തന്നെ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു കോണ്ഫിഡന്സായിട്ട് നമുക്കറിയാൻ പാടില്ലാത്തതാണെങ്കിപ്പോലും നമുക്ക് ഇന്നത് ചെയ്യാമോന്ന് ചോദിച്ചാൽ ചെയ്യാമെന്നൊരു തന്റെടം നമ്മെ കൊണ്ട് എന്നിട്ട് അറിവുള്ളവരോട് ചോദിച്ച് നമ്മളോരോ കാര്യങ്ങള് ചെയ്യാനുള്ള ഒരിത് നമുക്ക് ഉണ്ട്